ആ ചേട്ടാ നമസ്കാരം ഞാൻ നേരത്തേ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തിണ്ടായിരുന്നു ഇവിടെ ഓർമ ഉണ്ടോ ഒരു പത്ത് പൊറോട്ട പിന്നെ രണ്ട് അൽഫാം മൂന്ന് ചപ്പാത്തി ഒരു രണ്ട് ചിക്കൻ കറിയായിട്ട് ഒരു ഓർഡർ തന്നിണ്ടാർന്നു അത് ഇതുവരെ എന്നെ ആരും വിളിച്ചിട്ടില്ല ഡെലിവറിക്കാരനും ആരും വിളിച്ചട്ടൊന്നുമില്ല അപ്പം അതിൻ്റെ കാര്യങ്ങൾ അതൊന്നറിയാൻ വേണ്ടി വിളിച്ചതാണ് കാരണം ആ ഓർഡർ എന്തായി അത് സെറ്റായിട്ടുണ്ടോ അവിടുന്ന് ഡെലിവറി ആയിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടീട്ട് അതിൻ്റെ കാര്യങ്ങളൊന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് ഞാൻ